ഹലോ ആ പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ ആണ്

ഇപ്പോൾ പുതിയൊരു സ്കീം തുടങ്ങിയിട്ടുണ്ട് നാല് ശതമാനമാണ് പലിശ നാല് ശതമാനം പലിശയാണ് അപ്പോൾ നിങ്ങൾ എത്ര ലക്ഷമാണ് വേണ്ടത് എത്ര എമൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഇപ്പോഴൊരു പുതിയ സ്കീം ഉണ്ട് കെ സി സി അതായത് കാർഷിക ലോണ് അതാവുമ്പോൾ കാർഷിക ലോണായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സെൻ്റ് സ്ഥലമുണ്ട് ഒരേക്കറാണ് ഒരേക്കറിന് നിങ്ങളുടെ പേരിൽത്തന്നെ ആണോ സ്ഥലമുള്ളത് അച്ഛൻ്റെ പേരിലാണ് അങ്ങനെയാണെങ്കിൽ ആ അച്ഛൻ്റെ നികുതി ഷീറ്റും അച്ഛനും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർഷിക ലോണായിട്ട് ആണ് എടുക്കുന്നതെങ്കിൽ നാല് ശതമാനമേ പലിശ വരുള്ളൂ ആ ഗോൾഡ് ലോണോ ആ ഗോൾഡ് ലോൺ ആണെങ്കിൽ നമ്മൾക്ക് അക്കൗണ്ട് എടുക്കണം ബാങ്കിൽ അക്കൗണ്ട് എടുക്കണം പിന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ബാങ്കിൽ മിനിമം പിന്നെ അക്കൗണ്ടിൽ ബാലൻസ് വേണം പിന്നെ നിങ്ങക്കൾത് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം അപ്പം എത്ര പവനാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നര പവൻ അല്ലേ ആ ഒരു പവന് ഏകദേശം മുപ്പത്തിനാലായിരം രൂപ വരെ കിട്ടും മുപ്പത്തിനാലായിരം രൂപ മാസം ഒരു ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിൽ അങ്ങനെ എന്തായാലും വരും ഓക്കെ കാർഷിക ലോൺ പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് വേണം പാൻ കാർഡ് വേണം പിന്നൊരു നോമിനി വേണം അക്കൗണ്ട് ഉള്ള നോമിനി ഇപ്പോൾ അച്ഛൻ്റെ പേരിൽ പിന്നെ കുട്ടീൻ്റെ പേരിൽ തന്നെ ആണോ വയ്ക്കുന്നത് ആ അങ്ങനെ ആണെങ്കിൽ പിന്നെ ഹസ്ബൻ്റ് ഹസ്ബൻ്റ് ഉണ്ടോ അങ്ങനെ ആണെങ്കിൽ ഹസ്ബൻ്റ് ആണെങ്കിലും മതി ഹസ്ബൻ്റൊ അച്ഛനൊ അങ്ങനെ ആരെങ്കിലും നോമിനി ആയിട്ട് വേണം പിന്നെ അവരുടേയും പിന്നെ ആധാർ കാർഡ് വേണം പിന്നെ നിങ്ങടെ ആധാർ കാർഡും പാൻ കാർഡും പിന്നെ മറ്റേ ആ നോമിനി കൂടി ഒരു ഒപ്പിടാനായിരുന്നു കുറേ ഫോമും ഫിൽ ചെയ്യാനുണ്ട് ആഹ് ഓക്കെ എന്നാൽ നിങ്ങൾ വന്നാൽ മതി കേട്ടോ